ഹലോ ആ അതെ ആർക്കാണ് ആ ആ ഗൈനക്ക് ആശ മാഡം ഉണ്ട് ആശാ മാഡം ഒൻപത് മണി തൊട്ട് ഒരു മണി വരെയാണ് പിന്നെ ഇ എൻ ടി മൂർത്തി സാർ ഇന്ന് മൂർത്തി സാർ പത്ത് മണിക്കാണ് ഇരിക്കുന്നത് പത്ത് മണി മൊ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയേ ഉള്ളൂ ഇല്ല ഇല്ല ഇല്ല സർജറി ഡേ ഒന്നും അല്ല അപ്പം അപ്പം അപ്പോയിൻറ്മെൻറ് എടുത്തിടണം ഹോസ്പിറ്റലിൽ അത് ഏകദേശം ഒരു ഒൻപത് മണി ഒക്കെ ആവുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ എത്തണം ഗൈനക്കിനെ കാണിക്കണമെങ്കിൽ ആ ഗൈനക്കിൽ ഭയങ്കര തിരക്കാണ് അല്ല ഇ എൻ ടിയെ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഇ എൻ ടിയെ കാണിച്ച് നോക്കാം കാണിച്ച് നോക്കിയിട്ട് പറയുമല്ലോ സാർ പറയുവാണെങ്കിൽ അങ്ങോട്ട് മാറ്റാം അത് രണ്ടും വേറെ ഡോക്ടറിനെ എടുക്കാം കാർഡിയോളജിയിൽ ആണെങ്കിൽ ഓ വേണ്ട വേണ്ട ഇല്ല ഇപ്പോഴേ ഇങ്ങോട്ട് തരേണ്ട ഇവിടെ വന്നിട്ട് ഓ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറയും സ്കാനിങ്ങ് വല്ലതും ഉണ്ടോ എന്ന് പറയും പറയുവാണെങ്കിൽ വന്നാൽ മതി ടോക്കൺ ഒൻപത് ഗൈനക്കിന് ഒൻപത്